അതായത് ആദ്യ കാലങ്ങളിലൊക്കെയെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലും പേനയും പേപ്പറുമൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എഴുതാറ് അപ്പം ഇപ്പം എന്നു വച്ചിട്ടുണ്ടെങ്കിൽ സ്കൂളുകളിലും കോളേജുകളിലൊക്കെ നമുക്ക് പേനയും പേപ്പറും വച്ചിട്ട് തന്നെയാണ് എഴുതാറ് അത് ഇപ്പം എക്സാം ആണെങ്കിലും എന്ത് ആണെങ്കിലും നമ്മൾ പേപ്പറും പേനയും ഉപയോഗിച്ചിട്ട് തന്നെ ആണ് എഴുതാറ് പിന്നെയെന്നു വച്ചാൽ പണ്ടത്തെക്കാലത്തൊക്കെ എന്നു വച്ചാൽ നമുക്ക് പല രേഖകൾ കാര്യങ്ങൾ അങ്ങനെ ഉള്ള എല്ലാ കാര്യങ്ങളെന്നു വച്ചിട്ടുണ്ടെങ്കിൽ പണ്ടൊക്കെയെന്നു വച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ അതായത് എഴുതുകയാണ് ചെയ്യുക അപ്പം അതായത് പേനയും പേപ്പറും വച്ച് പക്ഷെ ഇപ്പം ഒക്കെയെന്നു വച്ചാൽ ലാപ്ടോപ്പും കമ്പ്യൂട്ടറും ഉണ്ടെങ്കിൽ അതിൽ എല്ലാം സ്റ്റോറ് ചെയ്യുകയാണ് ചെയ്യുക പിന്നെ സ്റ്റോറ് ചെയ്തിട്ട് ഉണ്ടെങ്കിൽ എന്നു വച്ചിട്ടുണ്ടെങ്കിൽ അത് ജീവിതകാലം മുഴുവൻ ആ ലാപ്പിൽത്തന്നെ അത് സേവ് ചെയ്ത് വച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാവും അപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് എന്താ ഇഷ്ടം എന്നു വച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എഴുതാനും അതായത് എഴുതാനും പിന്നെ പേപ്പറിൽ എഴുതാനൊക്കെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം പിന്നെയെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ലാപ്ടോപ്പ് ലാപ്ടോപ്പിൽ അതേപോല ടൈപ്പ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഇഷ്ടം ആണ് എനിക്ക് രണ്ടും ഏകദേശം ഇഷ്ടം ആണ് പക്ഷെ ലാപ്പിൽ ഒക്കെ ആണെങ്കിൽ നമുക്ക് എപ്പോഴും അത് കാണാൻ പറ്റും ഇപ്പം നമ്മൾ പേനയും പേപ്പറൊക്കെ വച്ചിട്ട് എഴുതുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും ചിലപ്പം അത് അതായത് നമ്മൾ സൂക്ഷിച്ച് ഒക്കെ വച്ചാൽ കാണാൻ പറ്റും പക്ഷെ ഇപ്പം സൂക്ഷിച്ച് വയ്ക്കാത്തവരാണെങ്കിൽ ചിലപ്പം അതൊക്കെ നഷ്ടപ്പെട്ട് പോയേക്കാം അപ്പം ഒരു കണക്കിന് രണ്ടും നല്ലത് തന്നെ ആണ്